ഹലോ ഹലോ ഇത് അഭിനവ് സാറല്ലേ സാറേ സാറേ ഞാൻ ഇടയ്ക്കിടക്ക് കാണിക്കുന്നയാ ഈ മൈഗ്രെനിൻ്റെയും ഛർദ്ദിൻ്റെയും പ്രശ്നമായിട്ട് ആ അപ്പോൾ അതിങ്ങനെ കുറയുന്നില്ല ഞാനിപ്പോൾ രണ്ടുമൂന്നു വട്ടമായി മരുന്നു വാങ്ങുന്നു പക്ഷേ എനിക്കത് കുറയുന്നില്ല പിന്നെയും പിന്നെയും തലവേദന വരുന്നുണ്ട് ഇടയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ കുറയും പക്ഷേ നിർത്തി കഴിയുമ്പോൾ പിന്നെയും തലവേന വന്നിട്ട് ഛർദ്ദി കഴിഞ്ഞിട്ടാണ് പിന്നെ തലവേദന മാറത്തുള്ളൂ ഭയങ്കര തലവേദനയാണ് അതിപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു ആ ഹ ആ അങ്ങനെ ആ ഈ രണ്ടുപേരുടെ അടുപ്പിച്ച് പുഴയിൽ പോയി ചാടലുണ്ട് ഉച്ചയ്ക്ക് അത് കഴിഞ്ഞിട്ട് കരയ്ക്ക് കയറി വരുത്ത് ആ ഓക്കെ ഓക്കെ ആ ഉണ്ട് ഉണ്ട് മരുന്നൊക്കെ കഴിക്കലുണ്ട് അപ്പോൾ നിർത്തുമ്പോൾ ആണ് പ്രശ്നം നിർത്തി കഴിഞ്ഞാൽ പിന്നെയും മൈഗ്രേൻ പോലെ തലവേദന വരുകയാണ് മരുന്ന് നിർത്തുമ്പോൾ വരുവാണ് ഓക്കെ ഓക്കെ ഡോക്ടറെ ആ ഓക്കെ ഓക്കെ ആ മരുന്നൊക്കെ ഇപ്പോൾ കറക്റ്റ് ടൈമിൽ കഴിക്കുന്നുണ്ട് ആ ഓക്കെ സാർ ഒന്നുകൂടെ നോക്കാം അല്ലേ അപ്പോൾ ഈ ഉറക്കം ഒഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഈ രണ്ട് ഉറക്കക്കുറവുണ്ടായിരുന്നു ഈ രണ്ടൂമൂന്ന് ദിവസമായിട്ട് ആണോ ആ അത് ഈ ഹോസ്റ്റലിലായതുകൊണ്ട് ഇങ്ങനെ പൊറ പഠിക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് ചില ദിവസം ഉറങ്ങുമ്പോൾ ഒക്കെ ലേറ്റ് ആകും

ആണോ ആ ഓ ആ സിസ്റ്റം യൂ നമുക്ക് സിസ്റ്റത്തിലാണെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ പ്രോഗ്രാമൊക്കെ ചെയ്യാൻവേണ്ടി സിസ്റ്റം യൂസ് ആക്കലുണ്ട് ഹമ് ആ ആ ഗ്ലാസ് യൂസ് ചെയ്യൽ ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യുന്നില്ല ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ പതിനാലാംതി അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി